പാരമ്പര്യമായിട്ടും കൃഷി മാറി എന്നുള്ളതിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ഇപ്പോഴാണെങ്കിലും നെൽകൃഷിയായിട്ടും ഇഞ്ചിക്കൃഷി വാഴക്കൃഷി എല്ലാ കൃഷികളിലും മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് നമ്മൾ കേരളിയർ എന്നു പറയുമ്പോൾ എല്ലാ കൃഷിരീതിയിൽ നിന്നും ഒരുപാട് വരുമാനം കണ്ടെത്തുന്നവരാണ് കേരളീയ ജനത നെൽക്കൃഷിയാണെങ്കിലും വാഴക്കൃഷി ഇഞ്ചിക്കൃഷി ഇഞ്ചിക്കൃഷിയൊക്കെ കൂടുതലായിട്ട് ഇപ്പോൾ നമ്മുടെ കേരളജനത വളരെയധികം ചെയ്തു വരുന്നുണ്ട് നെൽക്കൃഷിയിലൂടെയാണെങ്കിലും പുല്ലുവിറ്റും നെല്ലുണ്ടാക്കിയും ഒരുപാട് ഒരുപാട് പൈസ വരുമാനമാർഗ്ഗമായിട്ട് ഇന്ന് കഴിഞ്ഞിരുന്നു പാരമ്പര്യ കൃഷിരീതിയിൽ നിന്നും ഇങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട് എന്താ യന്ത്രങ്ങളായിട്ടും വളങ്ങളായിട്ടും ഒരുപാട് ഡിഫറൻസ് അന്നത്തെ കൃഷി രീതിയും ഇന്നത്തെ കൃഷി രീതിയുമായിട്ട് വ്യത്യാസമുണ്ട് അന്ന് ദിവസങ്ങളോടെ എടുത്ത് പണി ചെയ്തിരുന്ന കൃഷികൾ ഇന്ന് ദിവസം കുറഞ്ഞ രീതിയിലേക്ക് എത്താൻ ഇന്നത്തെ ആധുനിക വൽക്കരണത്തിലൂടെ ഹരിത വിപ്ലവ സംഘടനകളിലൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ വരുമാന മാർഗ്ഗത്തിലും ഒരുപാട് ഡിഫറൻസുണ്ട്